ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വാട്ട്സാപ്പ് ഒക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നുണ്ട് അവയൊക്കെത്തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നുണ്ട്

യൂട്യൂബ് അതുപോലെ യൂട്യൂബിനകത്തുനിന്നും ധാരാളം കാര്യങ്ങൾ എനിക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് അതിനകത്തുനിന്ന് ഇപ്പം എന്തിനെയെങ്കിലും കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചുകൊടുത്താൽ എന്ത് ഏത് ഏത് മേഖലകളിലായാലും ഏത് മേഖലയിലെ കാര്യങ്ങളെ കുറിച്ചായാലും അറിയാനായിട്ട് നല്ല അറിവ് തരുന്ന ഒരു ഒരു സം പ്ലാറ്റ്ഫോം ആണ് യൂട്യൂബ് ഈപ്പം ഒരു ഒരു വീട്ടമ്മയെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇപ്പം അടുക്കളയിലെ കിച്ചണിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട് പാചകം പാചകങ്ങൾ അതിനകത്ത് ധാരാളം പാചക കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളിൽ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസൈൻമെൻറ് അല്ലെങ്കിലൊരു പ്രോജക്റ്റ് ഏതെങ്കിലൊരു സബ്ജക്റ്റ് തന്ന് വിട്ടാൽ കുട്ടികളെ നമുക്കതിനകത്തൂടെ സഹായിക്കുവേം അവരെ അതിനത് പ്രാപ്തരാക്കാനായിട്ട് യൂട്യൂബ് സഹായിക്കും നമുക്ക് യൂട്യൂബിനകത്തൊന്ന് അടിച്ചുകൊടുത്താൽ ഏത് വിഷയമാണോ അതിനെ കുറിച്ച് നല്ല കുടുതലായിട്ട് അറിവുകൾ അതിനകത്തുനിന്നും നമുക്ക് ലഭിക്കും അതുപോലെ ഗൂഗിൾ ആയാലും ഗൂഗിളിനകത്തായാലും അടിച്ചുകൊടുത്താൽ ധാരാളം കാര്യങ്ങളിപ്പം എവിടെയെങ്കിലും യാത്ര പോകാനാണെങ്കിൽ പോലും സ്ഥലങ്ങളുടെ ഒരു അറിവ് നമുക്ക് പരിമിതമാണെങ്കിൽ അതിനകത്ത് അടിച്ചുകൊടുത്താൽ നമുക്കാ സ്ഥലം വളരെ കൃത്യമായിട്ടും നമുക്ക് ചെന്നെത്താനും അതിനെകുറിച്ച് നുമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുവാനും സാധിക്കും ഇപ്പോൾ ഒരു ടൂറിസം മേഖലയിലേക്ക് പോകുന്നൊരു ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് അത് ഏതൊക്കെ ഒ സ്ഥലങ്ങൾ അവിടെയുണ്ട് ടൂറിസം മേഖലകൾ അവിടെയുണ്ട് എന്നൊക്കെ അറിയാൻ നമുക്ക് ഗൂഗിൾ സഹായിക്കും ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് വഴി വഴി എത്തി നി ശരിയായ രീതിയിൽ ആ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ പ്രോജക്റ്റുകൾ കുട്ടികൾക്കായാലും നമുക്ക് മുതിർന്നവർക്കായാലും എന്തെങ്കിലും അത്യാവശ്യം എന്നാ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനുമായിട്ട് വിഷയവും ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ അതുപോലെ പിക്ച്ചേഴ്സ് അതൊക്കെ എന്തുവേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ് നമുക്ക് അതിനകത്തുനിന്നും എടുക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ അവരുടെ പഠനപരമായ മേഖലകളിലേക്കും സാങ്കേതിക മേഖലകളിലേക്കും ഒക്കെ നമുക്ക് മുന്നേ മുന്നേറാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബും വാട്ട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ ആണെങ്കിൽ തന്നെ ഓരോ ദിവസം ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കുടുതലും എനിക്ക് തോന്നുന്നത് എന്നാ അത് ആ സമയം നടന്ന അതേ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നൊരു പ്ലാറ്റ്ഫോം ആണ് ഫേസ്ബുക്ക് അതുപോലെ വാട്ട്സാപ്പിൽ നമുക്ക് ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് നമുക്ക് ഫോട്ടോസ് അയയ്ക്കാനും വീഡിയോസ് അയയ്ക്കാനും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനും കൂട്ടായി ഇപ്പം അകന്നാണെങ്കിൽ പോലും കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കുന്നൊരു പ്ലാറ്റ്ഫോം ആണ് ഫേസ്ബുക്കും വാട്ട്സാപ്പും എന്ന് പറയുന്നത്